ഇപ്പോൾ വീഡിയോ ഗെയിമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് വീഡിയോ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു പറയാം പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ വീഡിയോ ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജോയ്സ്റ്റിക്ക് വഴിയാണ് നമ്മൾ കൂടുതലായിട്ടും കളിച്ചുകൊണ്ടിരുന്നത് പല രീതിയിലുള്ള ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താ പറയുക കാർ റൈസിംഗ് പിന്നെ ഒരൂ ഒരു ഒരു പുള്ളി ഇങ്ങനെ ചാടിക്കൊണ്ടു നടക്കുന്ന ഒരു ഗെയിം കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ഗെയിമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലൂടെ നമുക്ക് വീഡിയോ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻവേണ്ടി സാധിക്കും അങ്ങനത്തെ പലരീതിയിലുള്ള വീഡിയോ ഗെയിമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ നമുക്ക് മൊബൈലിലൂടെ ലഭ്യമാണ് പബ്ജി ഉണ്ട് ഇപ്പോൾ കൂടുതലായിട്ടും പബ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പിള്ളേർ അഡിക്ടാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് ഇത് ബാൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പിള്ളേർ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഗെയിമുകളിലും പല രീതിയിലുള്ള വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്ന് വച്ച് വച്ചാൽ അത് പൈസ മുടക്കിയിട്ട് വേണം നമ്മൾ കളിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അത് ചിലപ്പം നമുക്ക് പൈസ കിട്ടാനോ ചിലപ്പോൾ നമ്മൾക്ക് നഷ്ടം വരാനോ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാരുന്നു ഇപ്പോൾ വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഗെയിം കളി അങ്ങനെ ഇപ്പോൾ കുറെ ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്